ഹലോ പറയു അക്ഷയ സെൻ്റ ആ പറഞ്ഞോളൂ ആധാർ കാഡ്ണ്ടാക്കാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതാണോ ആ അങ്ങനെയാണെങ്കിൽ എസ് എസ് എൽ സീൻ്റെ കോപ്പീ ആ അത് എസ് എസ് എൽ സീൻ്റെ കോപ്പീം ബെർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാൽ മതി റേഷൻ കാഡ്ണ്ടാക്കാൻ റെസിഡൻസി സർട്ടിഫിക്കറ്റ്

പെൻഷന് വാർധക്യ പെൻഷനാണോ വാർധക്യ പെൻഷനാണോ ആ അതിനാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാറ് ഐ ഡീ ക്കാഡ് ഫോട്ടോ ഇങ്കം സർട്ടിഫിക്കറ്റ് ആ ഇത് കൊണ്ടുവന്നാൽ മതി

വേഗം പറയൂ നമ്മളുടെ ഇവിടെ നല്ല തിരക്കാണ്

ഇത് രാവിലെ ഒൻപത് മണിക്ക് സ്റ്റാട്ട് ചെയ്യും അഞ്ച് മണിക്ക് ക്ലോസ്സ് ചെയ്യും തിരക്കില്ലാത്ത ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല അക്ഷയ സെൻ്ററല്ലേ എപ്പോഴും തിരക്കായിരിക്കുവല്ലോ മാഡം വന്നോളൂ ചെയ്ത തരാം അത് ഇങ്ങൾ ഇങ്ങളിവിടെ വീടിൻ്റടുത്തൊക്കെയാണെങ്കിൽ സെൻ്റർൽ നേരിട്ട് വരുവായിരിക്കും നല്ലത് അത് മറ്റുള്ളവരെ കയ്യിൽ കൊടുത്തുവിടുമ്പോഴീ സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാനെന്താ ചെയ്യുക നിങ്ങളെ ഫോൺ നമ്പറ് ഒരു പേപ്പർലെഴ്തീട്ട് എന്താ എല്ലാ ഡോക്യൂമെൻട്സ്സും ഒരു പേപ്പ കവർൽ ഇട്ടിട്ട് കൊടുത്തുവിട്ടാലും മതി എന്നിട്ടൊന്നു വിളിച്ചുപറയണം ഇന്നാളാണ് കൊടുത്ത് വിട്ടതെന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാൻ പറ്റില്ലല്ലോ

അതെയതെ നല്ല തിരക്കാണ് മേഡം ഞാൻ തിരിച്ചു വിളിച്ചോളാം